ഹലോ ജനേഷ് ഹൈപ്പർ മാർക്കറ്റല്ലേ ആ അതെ ആരാണ് ആ ആ ഓക്കെ സ്ഥലം എവിടെയായിരുന്നു വയനാട്ടിൽ തന്നെയാണ് അല്ലേ ഹോം ഡെലിവറി ചെയ്യേണ്ടി വരും നിങ്ങളിതിൽ ആ ഓക്കെ ആ ഓക്കെ ഇന്ന് ഓഫർ ഡേ ആയിരുന്നു മാം ആ ഇന്ന് ഓഫർ ഡേ ആയിരുന്നു അപ്പം വൺ കെ ജി ലിമിറ്റ് ഉണ്ട് അപ്പം എത്രയാണ് വൺ കെ ജി എടുക്കുമ്പം അതിൻ്റെ റേറ്റ് കുറയും അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നോർമൽ റേറ്റിലേക്ക് പോവും ആ അതിപ്പം ഇന്ന് ഓഫർ ആയതുകൊണ്ടാണ് അല്ലാതെ ഡിസ്ക്കൗണ്ട് ഉണ്ട് ഇപ്പോൾ കാരണം കുറച്ച് ബൾക്കായിട്ടല്ലേ എടുക്കുന്നത് അപ്പം അതിൻ്റെ അമൗണ്ട് ഡിസ്ക്കൗണ്ട് ഉണ്ടാവും കാരണം എല്ലാ മെറ്റീരിയലും എടുക്കുന്നുണ്ടല്ലോ ഓഹ് എല്ലാ സാധനവും ഉണ്ട് സാർ എല്ലാ സാധനവും ഉണ്ട് സാർ ആ ഇല്ലെങ്കിൽ എത്തിച്ച് തരുന്നതായിരിക്കും സാർ എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ അല്ല ഏത് സ്ഥാനമാണെന്ന് പറഞ്ഞാൽ മതി വെജിറ്റബിൾസ് എന്തായാലും ഈ വീക്കെൻ്റിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് അത് സാർ പേടിക്കണ്ട റൈസൊക്കെ ഉണ്ട് ആ കയ്യിന്മേൽ ഉണ്ട് അങ്ങനെ കുറെ റൈസിന് ഇപ്പം ഐറ്റംസ് ഉണ്ട് എപ്പോഴും സാധനം ഉണ്ടാവും കസ്റ്റമേഴ്സുകാരെ പറഞ്ഞു വിടും കസ്റ്റമർ കെയറിൽ ചെല്ലുന്നിടത്ത് തന്നെ കസ്റ്റമർ കെയർ ഇല്ലേ അവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി ഇങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നൊക്കെ പറഞ്ഞാൽ മതി ആ സാറിൻ്റെ പേരൊന്ന് പറയാമെങ്കിൽ നോട്ട് ചെയ്ത് വെയ്ക്കാമായിരുന്നു ആ ഓക്കെ സ്ഥലം എവിടെ ആയിട്ടാ വരുന്നത് കറക്റ്റ് ആ ആ ഓക്കെ സാറിൻ്റെ കോൺടാക്ട് ഈ കോൺടാക്ട് നമ്പർ തന്നെയാണോ ഏയ് ഇല്ല സാർ ഇവിടെ വന്നിട്ട് പറഞ്ഞാൽ മതി പ്രൊഡക്ട് എടുത്തതിന് ശേഷം ചെയ്താൽ മതി അല്ലെങ്കിൽ ക്രെഡിറ്റിൽ നമ്മൾക്ക് അടിക്കാം പിന്നെ എപ്പഴാണെന്ന് വച്ചുകഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇതാക്കാം ക്യാഷ് കൊടുത്താൽ മതി സംസാരിക്കുമ്പോൾ

ആ ഓക്കെ ഓക്കെ